ആ ചേട്ടാ നമ്മളൊരു വീട് സ്ഥലത്തിൻ്റെയും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ

ആ നമുക്കൊരു ഒര് മുപ്പത് നാപ്പത് സെൻറ്റിനുള്ളിൽ വരുന്ന പോലെ ഒരു വീടും കുറച്ച് ചുറ്റുവട്ടവും സ്ഥലവും കാര്യങ്ങളൊക്കെയായിട്ടായിരുന്നു നമുക്ക് പുതിയ മോഡലില് വീട് മതി അതേപോല ടൗൺ ഏരിയകളിലൊക്കെ ആണെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വേണം രണ്ട് നില വീട് ഒരു മൂന്ന് ബെഡ്റൂമ് ഉള്ളത് ആ ആ ഒരു നാപ്പത് നാപ്പത്തഞ്ച് മുപ്പ ആ അമ്പത് സെൻറ്റിനുള്ളിൽ മതി ആ അതുപോലെ വാഴകൃഷി ഒര് തെങ്ങൊക്കെ വയ്ക്കാനുണ്ട് ആ വെള്ളം വേണം നമുക്ക് കിണറോ അല്ലെങ്കിൽ ബോർവെല്ലോ ഉള്ള ആ പുറത്ത് ടൗണില് മതി അത് ആകുമ്പോൾ കുറച്ച് അത്യാവശ്യം മറ്റെ ഹോസ്പിറ്റലും സ്കൂളും കോളേജ് ഒക്ക അട്ത്ത് ഉള്ള പോലത്തെ ഏര്യാ ആ റോഡ് സൈഡ് വീട് വേണം ഒരു സെൻറ്റിന് ഒര് ഒരു ലക്ഷം രൂപ വരുന്ന രീതിയിലാണെൽ കുഴപ്പം ഇല്ല

വേറെ ഇപ്പോൾ വേറെ വേണ്ട ആ നമുക്ക് ഇപ്പം എപ്പം എപ്പഴേക്ക് ഇത് നോക്കാൻ പറ്റും നമുക്ക് എന്നാൽ അടുത്ത ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച കഴിഞ്ഞിട്ട് നോക്കാം ആ അതുപോലെ റെസിഡൻഷ്യൽ ഏര്യ ഉള്ള സ്ഥലം നാളെ നാളെ നോക്കാം പോകണമെങ്കിൽ ആ ശരി നാളെ വൈകീട്ട് പോവാം ആ ശരി നാളെ നോക്കാം